ഇന്നത്തെ കാലത്ത് നമ്മുടെ ടെക്നോളജിയൊക്കെ വളർന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും മൊബൈൽ ഫോണും സ്മാർട്ട് ഫോണുകളൊക്കെ അവൈലബിളാണ് അത് ഇപ്പോൾ ഒരഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികളുടെ കയ്യിലൊക്കേ ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോണുകളുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും അതേപോലെ നമുക്കിപ്പോൾ നമ്മടെ നാട്ടില് കാര്യങ്ങളാണെങ്കിലും വാർത്തകള് വഴിയും അതേപോലെ ഫോണുകള് വഴിയൊക്കെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അറിയാനും ആക്സസ് ചെയ്യാനും കാണാനൊക്കെ പറ്റുന്നതാണ് നമുക്ക് നമുക്ക് നമ്മുടെ നാട്ടിലെന്താ നടക്കണതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് അതേപോലെ ഇന്റർനെറ്റില് നോക്കുമ്പോൾ പെട്ടന്ന് തന്നെ കിട്ടുന്നുണ്ട് നമ്മുടെ ടെക്നോളജി വളർന്നു ഫോർ ജി വന്നു ഫൈവ് ജി വന്നു അതുകൊണ്ടുതന്നെ നമുക്ക് എല്ലാം അപ്പൊക്കപ്പഴേ കിട്ടും അതേപോലെ രാജ്യത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമ്മള് ഈ ഇത്രയും വലിയ രാജ്യത്തിൻ്റെ കോണിൽ കിടന്നുകൊണ്ടുതന്നെ നമുക്ക് ഇരുന്നുകൊണ്ടുതന്നെ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ രാജ്യത്തിൻ്റെ ഈ തല കൊച്ചു കേരളത്തിൽനിന്ന് നമ്മളുടെ ഡൽഹിയിലെന്താ നടക്കണതെന്ന് അറ്റ് എ ടൈം ഇപ്പോൾ എന്താ നടക്കണതെന്ന് നമുക്കിവിടെ നിന്നിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് അതിന് ഇൻറ്റർനെറ്റിൻ്റെ സ്പീഡും വളർച്ചയും കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സംസ്ഥാനത്താണെങ്കിലും രാജ്യത്തെ ആണെങ്കിലും മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് അത് ഇപ്പോൾ പഠിക്കണ വിഷയമാണെങ്കിലും നാട്ടില് നടക്കണ പ്രാദേശിക കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരു വിരലിൽ തന്നെ അറിയാൻ പറ്റും ഇൻറ്റനെറ്റ് ഉള്ളതുകൊണ്ട്